ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അതിപ്പോൾ പഴയ കാലഘട്ടത്തിലാണെങ്കിലും പുതിയ കാലഘട്ടത്തിലാണെങ്കിലും മതത്തിന് വ്യക്തമായ ഒരു പങ്കുണ്ട് ഞാനിപ്പോൾ ഒരു ഹിന്ദു മത വിശ്വാസിയാണ് മറ്റു മതങ്ങൾ എന്നു വെച്ചാൽ ക്രിസ്ത്യാനി ക്രിസ്ത്യനോ മുസ്ലീം തുടങ്ങിയ മതങ്ങളാണ് ഞങ്ങളുടെ ഈ ഇവിടെ കാണപ്പെടുന്നത് എനിക്ക് ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹത്തിലെ എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളിയിൽ പോകും അതിപ്പം രാവിലെ ആണെങ്കിൽ രാവിലെ രണ്ടോ മൂന്നോ കുർബാന കാണും അതിപ്പം രാവിലത്തെ ആറിൻ്റെ കുർബാനയ്ക്കാണെങ്കിൽ അവർ അഞ്ചു മണിയാകുമ്പോൾ എഴുന്നേറ്റു റെഡിയായി കൃത്യം അവർ ആറാകുമ്പം അവിടെ എത്തിയിരിക്കും അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിപ്പം നല്ലൊരു ഇതാ അവർക്ക് അവർ പിന്നെ അച്ഛൻ അവരുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചും ഒക്കെയാണ് അവർ മുന്നോട്ടു പോവുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം മുസ്ലിം സമുദായത്തിൽ ആണെങ്കിൽ അവരുടെ നോയമ്പ് അത് അവൾ അവർ വളരെ ചിട്ടയോടെ അടുക്കോടെയും കൂടി തന്നെയാണ് അത് വ്യക്തമായിട്ട് അവർ ചെയ്യും അത് അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കത്തില്ല ആ രാവിലെ മുതൽ ആ വൈകുന്നേരം ആ നോമ്പു മുറിക്കുന്നിടം വരെ അവർ ജലപാനം കഴിക്കാതെ നിന്ന് ഭക്തിയിൽ തന്നെ അത് മുഴുമിപ്പിക്കും അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നാനാ തത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോ ഒരുപോലെതന്നെ കാണണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്